ഇപ്പോൾ കേരളത്തിൽ ലഭ്യമായ ആരോഗ്യ സേവനങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടുതലായിട്ടും മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള സേവനങ്ങളാണ് കൂടുതലായിട്ടും ഉള്ളത് പിന്നേ അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലാണ് നമുക്ക് നല്ല രീതിയിലുള്ള പരിക്ക് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ചികിത്സിക്കാൻ പോകേണ്ടത് അല്ലാണ്ടും നമുക്ക് പോകാൻ വേണ്ടിയൊക്കെ ക കഴിയും കാരണമെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അടുത്ത ഇപ്പം കോഴിക്കോടു തന്നെ മെഡിക്കൽ കോളേജെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാ മാവൂർ റോഡ് ആ ഭാഗത്താണ് ഉള്ളത് ഇപ്പോൾ നമുക്ക് കുടുതലായിട്ടും അടുത്തുള്ള ഹോസ്പിറ്റലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജാണ് അപ്പോൾ നമ്മൾ കുടുതലായിട്ടും അവിടെയാണ് പോകാറ് പക്ഷെ അവിടെ ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെയായിരിക്കും അങ്ങനെ തിരക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ കുടുതലായിട്ടും പോകാറുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതി രീതിയിലുള്ള കാരുണ്യ ഹോസ്പിറ്റൽ അങ്ങനത്തെ ഹോസ്പിറ്റലിലാണ് പോകാറുള്ളത് അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള അതായത് നമുക്ക് ചിലവ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറക്കാനുള്ള സാദ്ധ്യതകളൊക്കെ നമുക്ക് അതിന് അവിടെയുണ്ടെന്ന് പറയാം